കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി സൗജന്യപരമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവയിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വച്ചാൽ കേന്ദ്രം അനുവദിക്കുന്ന സൗജന്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് അവരുടേതായിട്ടുള്ള സൗജന്യ വിതരണമായിട്ടാണ് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അവരുടേതായിട്ടുള്ള സൗജന്യങ്ങളിൽ ലോകപ്രശസ്തമേറിയത് പോലെയാണ് വിവരിക്കുന്നതും എന്നാൽ ഇതിൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെേതായിട്ട് ലഭിക്കുന്നതും സംസ്ഥാന സർക്കാരിൻ്റേതായിട്ട് ലഭിക്കുന്നതുമായ നിരവധി സൗജന്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു സംസ്ഥാന സർക്കാർ തങ്ങളുടേതായിട്ടുള്ള സഹകരണത്താലാണ് ഇവയെല്ലാം ലഭിച്ചത് എന്നു അഭിപ്രായപ്പെടുന്നു ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ജനങ്ങളെ ശരിക്കും കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അതായത് അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങളിലും ലഭിക്കുന്നതായ കാര്യങ്ങളും തങ്ങളുടെ ഇതെന്ന് അവകാശപ്പെടുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ തെറ്റിദ്ധാരണകളെ തിരിച്ചു മാറ്റി എഴുതുുവാനോ മാറ്റി തിരുത്തുവാനോ കേന്ദ്ര സംസ്കാരം ശ്രമിക്കുന്നതില്ല കാരണം അവരുടെ ഭരണം ഏത് പാർട്ടിയുടെ പരമായിട്ടാണോ സംസ്ഥാനത്ത് നടക്കുന്നത് അവർക്ക് മാത്രം പിന്തുണ നൽകുന്ന തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ഭിന്നതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവ കാരണം മൂലം ഇവ കാരണമാണ് രണ്ട് കേന്ദ്രവും തമ്മിൽ എപ്പോഴും തർക്കങ്ങളാലും അഭിപ്രായ വ്യത്യാസങ്ങളാലും ആണ് മുന്നോട്ട് പോകുന്നത്